ജീവിത ശൈലി രോഗങ്ങൾക്ക് യോഗ തീർച്ചയായിട്ടും ഒരു മരുന്നാണ് ഇന്ന് പലപ്പോഴും എല്ലാവരും ചെയ്യുന്നത് എന്തെങ്കിലും രോഗങ്ങൾ വന്നുകഴിഞ്ഞാൽ ഉടനെ പിന്നെ ആശുപത്രിൽ പോകുക എന്നുള്ളതാണ് എന്നാൽ പണ്ട് കാലങ്ങളിൽ ആശുപത്രികൾ അധികം ഇല്ലായിരുന്നു ഒരുസ്ഥലത്ത് ഒരു ആശുപത്രി എന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയ ഭാഗ്യമായിരുന്നു എന്നാൽ കുഗ്രാമങ്ങളിലും മറ്റ് വാഹനഗതാഗതം ഇല്ലാത്തിടത്തും ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല ഇവിടെയെല്ലാം പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് യോഗ കൊണ്ടുണ്ടാകുന്ന ഒത്തിരിയേറെ പ്രയോജനങ്ങളാണ് വായുകമ്പം ഇന്നനുഭവപ്പെടുന്ന വയറ്റിലെ അസുഖങ്ങൾ തലവേദന ചുമ കബം എന്നിവയെല്ലാം ഓരോ യോഗ അഭ്യാസത്തിലൂടെ മാറ്റിയെടുക്കുവാൻ സാധിക്കും നിരന്തരം ഉണ്ടാകുന്ന പനി പലപ്പോഴും ഇന്നും അതിന് ചികിത്സയില്ല എന്നുള്ളത് സത്യമാണ് ആശുപത്രികളിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ ഒരു ആശ്വാസമായിട്ട് മാറുമെന്നേയുള്ളു എങ്കിലും പിന്നീടും അത് നമുക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നാൽ യോഗ പഠിക്കുന്നതിലൂടെ യോഗ പരിശീലിക്കുന്നതോടെ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഒരു രോഗത്തിൽ നിന്നും സൗഖ്യം ലഭിക്കും എന്നുള്ളത് യോഗ അഭ്യാസികൾ പറയുന്ന സത്യമാണ് വേദങ്ങളിൽ പോലും യോഗ പഠിക്കുന്നതിലൂടെ പരിശീലിക്കുന്നതിലൂടെ അത്രയേറെ ഉന്മേഷം ഉണ്ടാകുന്നതായിട്ട് പല ജീവിത ശൈലി രോഗങ്ങളിൽ നിന്നും മുക്തിനേടുന്ന നേടുവാൻ സാധിക്കുമെന്നും എന്നും പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ യോഗ പരിശീലിക്കുന്നവര് തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രയോജനം അവർക്ക് മനസിലാകുന്നില്ല എന്നാൽ നിരന്തരമായ പരിശീലനത്തിലൂടെ ഏതൊരു അഭ്യാസിക്കും ആനയെ ചുമക്കാം എന്നുള്ളതുപോലെ എന്ന് പറയുന്നതുപോലെ നിരന്തരമായ യോഗ പരിശീലനത്തിലൂടെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും ജീവിതശൈലി രോഗങ്ങൾ പ്രത്യകിച്ച് കുട്ടികളിൽ ഇന്ന് കൂടി വരികയാണ് അവര് കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ അവർ ശ്വസിക്കുന്ന വായുവിലൂടെ അവർ കുടിക്കുന്ന ജലത്തിലൂടെയൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് രോഗങ്ങൾ കടന്നു വരുന്നതാണ് അതിന് ഉടനെയുള്ള മരുന്നായിട്ട് ആശുപതികളിലൂടെ കിട്ടുന്ന മരുന്നുകൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അവരുടെ ശരീരത്തിൻ്റെ ആവശ്യമായ എല്ലാ ഘടകങ്ങളെയും അത് നശിപ്പിക്കും ശരീരത്തിലുണ്ടാകേണ്ട ചെറിയ ചെറിയ പ്രാണികൾ നമ്മള് സൂക്ഷമ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാവുന്ന ആ പ്രാണികൾ പോലും അത് നശിപ്പിച്ചുകളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് യോഗ എപ്പോഴും ഏതൊരു വ്യക്തിയെയും ജീവിത ശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ സഹായിക്കുന്നതാണ് അത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുകയും അത് ദിവസവും ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളാണ് അവരുടെ കുട്ടികൾക്ക് രോഗങ്ങളില്ലാതെ സംരക്ഷിക്കുവാൻ മാതാപിതാക്കളാഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനേറ്റവും നല്ലത് ഉപാധി യോഗ അഭ്യസം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു ക്രമീകരണം ജീവിതത്തിൻ്റെ ക്രമീകരണം തന്നെ കുട്ടികളിലേക്ക് വളർത്തികൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അടുത്ത തലമുറകളിലെ കുട്ടികളിൽ രോഗങ്ങൾ കുറഞ്ഞ് നിൽക്കുവാനും കുട്ടികൾക്ക് യോഗ പരിശീലനത്തിലൂടെ ലഭിക്കുന്ന ഉന്മേഷവും ഊർജ്ജവും കൂടുതൽ കുട്ടികളിൽ പ്രസരിക്കുന്നത് കാണുവാനും നമുക്ക് സാധിക്കും